ഞാൻ കാസർഗോഡ് നിന്നാണ് വരുന്നത് കാസർഗോഡ് വെളിയിൽ നിന്നാണ് അപ്പം ആടെ കുറേ കളി ഉണ്ട് എങ്ങനെത്തെയെല്ലാം കുറേ തരം കളി ഉണ്ട് അപ്പം ഞമ്മക്ക് മെയ്നായിട്ടുള്ളത് ഗോലി ഫുട്ബോൾ അങ്ങനത്തെയെല്ല കളി ഉണ്ട് ഇപ്പോൾ ഗോലി പറഞ്ഞ ഭയങ്കര കളിയാണ് ഇപ്പോൾ പരിപാടി എല്ലാം ഉണ്ടാകുമ്പോൾ പുരയിൽ ഫങ്ഷൻ അങ്ങനത്തെ കാര്യമെല്ലാം ഉണ്ടാകുമ്പോൾ പെ ഈ ഗോലി കളിക്കും നല്ല പാട എന്തോരം ഗോലി കളിക്കാൻ അപ്പം കുറേ അമ്മായിമാറും മൂത്തമ്മമാറും ഓറെ മക്കളും ആൻറ്റിയും ദീദിയും മൂത്തമ്മാവും ചാച്ചിയും അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടാകും പിന്നെ ഉപ്പാൻ്റെ അളിയന്മാർ മൂത്താപ്പമാർ പിന്നെ ജീജൊ കുഞ്ഞാ ഉപ്പാപ്പ ഓപ്പ ദീദി പിന്നെ എൻ്റെ അനിയന്മാർ അനിയത്തി പിന്നെ കസിൻ ഓരെല്ലാം ഉണ്ടാകും ഓരെ മക്കോ അങ്ങനത്തെ ഓർക്ക് ആൾക്കാരെല്ലാം ഉണ്ടാകും മാപ്പളയോ പിന്നെ ഓറെ മക്കോ അങ്ങനെയെല്ലാം ഉണ്ടാകും ഓരെല്ലാം വന്നിട്ട് ഗോലി കളിക്കും ഗോലിയെന്നു പറയുന്നത് ഇപ്പം ചിരട്ട ഉണ്ട് ഈ തേങ്ങാൻ്റെ ഈ ഷെല്ല് അതിനോട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ചിരട്ട ആ ചിരട്ട വെച്ചിട്ട് ചിരട്ട പ ഒര് ഏയ് ചിരട്ട കണക്ക് ആ ഏ ചിരട്ട നമ്മൾ വെക്കണം അപ്പോൾ ഏയ് ചിരട്ട വെച്ചിട്ടാകുമ്പോൾ ഇങ്ങനെ അട്ടി അട്ടി അട്ടി വെക്കണം ഏയ് ചിരട്ട എന്നിട്ട് അതു നടുവിൽ വെക്കണം എന്നിട്ട് ഒരു ടീം രണ്ടു ടീം ആക്കിയിട്ടെടുക്കണം അതു രണ്ടും വേറെ വേറെ ടീം കുറച്ചാൾക്കാർ അപ്പോഴത്തെ ടീമും കുറച്ചാൾക്കാർ ഇപ്പുറത്തെ ടീം അപ്പം കളിക്കുമ്പോൾ ഒരു പത്തു മീറ്ററൊന്നും ബെ വേണമെന്നില്ല ആ ഒരു എട്ട് മീറ്റർ സംതിങ് ഡിസ്റ്റൻസ്സ് വെക്കണം എറിയുന്ന സ്ഥലം അപ്പം നമ്മൾ ആ ലൈൻ ലൈനിടും അവിടെ അന്നിട്ട് നടുവിൽ അതു വെക്കും എന്നിട്ട് ബോളെടുത്തിട്ട് ബോളുണ്ടാക്കും ടെന്നീസ് ബോൾ നല്ലൊരു സോഫ്റ്റ് ബോൾ ടെന്നീസ് ബോളാ അങ്ങനത്തെ എന്തെങ്കിലും കളിക്കും അല്ലെങ്കിൽ കല്ലെടുത്തിട്ട് അതിലേക്ക് ടേപ്പും പേപ്പറെല്ലാം ചുറ്റിയിട്ട് അ അങ്ങനെ കളിക്കും നല്ല പാണ്ടാ ഒരാൾക്ക് മൂന്ന് ചാൻസ് ഉണ്ട് എറിയാൻ അപ്പോൾ നടുവിൽ വെച്ചിട്ടായിട്ട് ഈ കലമന്തുണ്ടാക്കിയ ബോളാണ് കല്ലായത് എടുക്കുക എറിയുക മൂന്നു ചാൻസ് അത്ര തന്നെ ഉണ്ടാകും അതെടുത്തിട്ട് എറിയയുക എറിയുമ്പോൾ അത് ബീയണം ചിരട്ട ചിരട്ട ബീണങ്കി പായാണ് എന്നിട്ട് നമ്മൾ പായൻ്റെ മാത്രമല്ല ഓര് നമ്മളുടെ വൊ എതിർ ടീം നമ്മൾ മേത്ത് ബോളെറിയണം ഞ എതിർ ടീം ഞമ്മളെ മേത്ത് ബോളെറിഞ്ഞെങ്കിൽ നമ്മൾ ഔട്ടായി അത് നമ്മൾ ജയിക്കണമെങ്കിൽ ആ ഗോലി വെച്ചതിലേക്ക് ഇതാക്കണം നമ്മൾ ആ ഗോലിയെ ഏഴെണ്ണം അട്ടി അട്ടി വെക്കണം അന്നിട്ടായിട്ട് നമ്മളുടെ മേത്ത് ബോൾ കൊള്ളാണ്ട് നോക്കണം കുറെ ആൾക്കാരുണ്ടാകുമല്ലൊ ആരുടെ മേത്ത് വേണമെങ്കിൽ ബോൾ കൊള്ളാം പിന്നെ ബോൾ എറിയണമെങ്കിൽ നിന്നടുത്തു തന്നെ എറിൻ കഴിയൂ നിന്നടുത്തു നിന്ന് അപ്പുറം പോയിട്ട് ബോളെറിയാൻ കഴിയുക നമ്മൾ ഏടെ നിൽക്കുന്നത് അവിടെ നിന്ന് ബോൾ എടുത്തിട്ട് പാസ്സാക്കിയിട്ട് പാസ്സാക്കി പാസ്സാക്കിയിട്ട് എറിയണം ചിലപ്പോൾ വേറെയെല്ലാം കൊണ്ടങ്ങ് ചില ആൾക്കാർ എറിയുക എന്നെല്ലാം കൊണ്ട് നല്ലവണ്ണം മുമ്പിലാകും ഇപ്പോൾ ഇത് ചെ ചില ആൾക്കാർ ബോൾ പവർ ലെറിയും അതു കുറേ ആൾക്കാർക്കും വന്നിട്ടാകുമ്പോൾ ഇപ്പോൾ പെണ്ണ് പെണ്ണുങ്ങളെല്ലാം കളിക്കുന്നുണ്ടെങ്കിൽ ഓരെല്ലാം കരയും ബോൾ മേത്ത് കൊള്ളിട്ടകാം അപ്പോൾ ഓറ് ഔട്ടായി ഇ ബോൾ മേത്ത് കൊണ്ടിട്ടാകുമ്പോൾ ബോൾ മേത്ത് കൊണ്ടെങ്കിൽ അട്ടിപ്പൊളിയാണ് എന്തോരം പാങ്ങല നല്ല ചിരിയും രസവും എല്ലാമുണ്ടാകും ഇപ്പം ബോൾ എറിയുമ്പം ഇല്ലെ ബോൾ കൈയ്യിൽ പിടി ഒരാൾക്ക് മൂന്ന് ചാൻസെന്ന് പറഞ്ഞില്ലെ അപ്പോൾ ബോൾ കൈയ്യിൽ പിടിച്ചെങ്കിൽ ബോൾ കൈയ്യിൽ പിടിച്ചെങ്കിൽ ആകും ഔട്ട് ആകും അവർക്ക് ചാൻസില്ല ഇനി അടുത്ത ആൾ എറിയണം ഇപ്പോൾ ബോൾ കൈയ്യിൽ പിടിച്ചില്ലയെങ്കിൽ ആവുകയില്ല രാ മൂന്നു ചാൻസുണ്ട് പിന്നെ ഈ ഗോലിക്ക വെച്ചു ചിരട്ടയൊക്കെ കൊണ്ടിട്ട് ഗോരിക്കു വെച്ച ചിരട്ടയൊക്കെ കൊണ്ടിട്ട് ഇത് ഇതായെങ്കിൽ പോയി ടീം മൊത്തം ഔട്ട് അല്ലെങ്കിൽ ഒരാൾ മാത്രം ഔട്ട് ഗോരിക്ക് കൊണ്ട ചിരട്ടക്ക് ടിപ്പായി ചിരട്ട ബീയാണ്ട് ക്യാച്ച് പിടിച്ചാൽ ചിരട്ട ബീയാണ്ട് ആയിട്ട് ക്യാ ച്ച് പിടിച്ചാൽ കൈലൊ ഔട്ടായി അവർ എ ടീം മൊത്തം ഔട്ട് ഇനി അടുത്ത ടീം ഇപ്പുറത്തു വന്നിട്ട് എറിയണം എറിഞ്ഞിട്ട് വേണമെങ്കിൽ ഇതാക്കണം എന്നിട്ട് ഗോരി എല്ലാ കട്ട കട്ട ബെച്ചിട്ടായിട്ട് മേത്ത് കൊള്ളാണ്ട് ഗോരിയെന്നു വിളിച്ചാൽ അങ്ങേർക്ക് പോയിൻറ്റ് കിട്ടി അവർക്ക് പോയിൻറ്റ് കിട്ടിയാൽ അടുത്ത ഓരന്നെ എറിയണം അല്ലെങ്കിൽ അപ്പുറത്തെ ടീമിൽത്തെ ഓർ വന്നിട്ട് എറിയണം അപ്പുറത്തെ ഓരന്നെ വന്നിട്ട് എറിഞ്ഞെങ്കിൽ നല്ലത് ഇപ്പോൾ വേറെയെല്ലാം വന്നിട്ടിങ്ങനെ നമ്മൾ എറിയുമല്ലൊ എറിയും എറിഞ്ഞിട്ടു വീണിട്ടാകുമ്പം കാതിലെ ബോളെടുത്തിട്ടായിട്ട് ഓറെ മേത്തേക്ക് എറിയുക ഓരെ മേത്തേക്ക് എറിഞ്ഞ് ഇപ്പോൾ കുറേ ടീം ഉണ്ടാകുമല്ലൊ അപ്പോൾ ഇടയിൽ പുള്ള കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടാകും ചെറിയ ചെറിയ കുഞ്ഞുങ്ങളും ആടെ ഉണ്ടാകും അപ്പോൾ ഓരെല്ലാം മേത്തേക്ക് കൊണ്ടു വന്നു തരിക അപ്പോൾ സൂക്ഷിച്ചിട്ടിങ്ങനെ നല്ല നല്ലവണ്ണം നോക്കിയിട്ട് കളിക്കണം ഇത് കളിക്കുമ്പോൾ എങ്ങനെയെന്നറിയാമോ നല്ല പാങ്ങാ കളിക്കാൻ ഇപ്പോൾ കളിച്ചു കളിച്ചിട്ട് എല്ലാമായിട്ട് ബെങ്കപ്പോൾ ആടെ കുറച്ച് സമയം റെസ്റ്റുണ്ടാകും നമ്മൾ കണ്ടിന്യുവസായിട്ട് നാലഞ്ച് മണിക്കൂർ കളിക്കും നല്ല പാങ്ങുണ്ടാകും ഈ മൂത്താപ്പാൻ്റെ മക്കളും ഓരും അങ്ങനത്തെ ആൾക്കാരെല്ലാം ഉണ്ടാകും അതു കഴിഞ്ഞിട്ടായിട്ട് കുറേ ആണുങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇത് ഫുട്ബോൾ കളിക്കും ഫുട്ബോളെന്നു പറയുന്ന ഷൂ ഒന്നും ഇട്ടിട്ടല്ല ഷൂ ഒന്നും ഇടാണ്ട് ചെരിപ്പിട്ടിട്ടല്ലാങ്ക് ബെയർ ഫൂട്ടിലാണ് ഷൂ ഈ ഫുട്ബോൾ കളിക്കുന്ന ഫുട്ബോൾ കളിക്കാൻ നല്ല പാങ്ങ് ഇപ്പോൾ ഫുട്ബോൾ കളിക്കുമ്പോൾ നാ നാല് കല്ലാരിക്കും പോസ്റ്റ് ആക്കിയിട്ട് വെക്കുന്നത് രണ്ട് കല്ലിപ്പുറം രണ്ടു കല്ലപ്പുറം ഇത് ഓഫ് സൈഡ് അങ്ങനത്തെ റൂൾസൊന്നുമില്ല റെഡ് കാഡുണ്ടായില്ല യെല്ലോ കാഡില്ല അങ്ങനത്തെ ഒരു റൂൾസുമില്ല ഫുടബോളിൽ നല്ല പാങ്ങിൽ ഉണ്ടാകാണ്ട് കളിക്കാം കുൽമാലെല്ലാമാകും തല്ലെല്ലാമാകും ഗ്രാസൊന്നുമല്ല നമുക്ക് സാധാ കല്ലും ചരലും അങ്ങനത്തെ മണ്ണെല്ലാം ഉള്ള സ്ഥലമാണ് ഈ ഫുട്ബോൾ കളിക്കുന്നത് അപ്പോൾ മുള്ളെല്ലാം ഉണ്ടാകും അതെല്ലാ കാലത്ത് തറത്ത് നല്ല നൊമ്പല അന്ന് നോക്കിയില്ല നല്ല എല്ലാവരും നല്ല ഇതിൽ മൈൻഡ് സെറ്റിൽ കളിക്കാൻ തുടങ്ങും കളിച്ചിട്ടായിട്ട് മതിമറന്ന് വെയിലത്തായിരിക്കും കളിക്കുന്നത് നല്ല വെയിലത്തുണ്ടാകും വൈകുന്നേരം ബാങ്ക് എടുക്കുന്നതു വരേ കളിക്കും ബാങ്ക് ഒടുത്തിട്ട് എല്ലാവരും കയറിപ്പോകും കളിക്കുമ്പം അങ്ങനെ റൂൾസൊന്നുമില്ല ന ഒരു ആറാൾക്കാരുണ്ടാകും ഒരു ടീമിൽ ആറാൾക്കാർ ആറ് അപ്പുറം ഇപ്പുറം അത്ര ആൾ ലിമിറ്റൊന്നുമില്ല ഇപ്പം രണ്ടാളുണ്ടെങ്കിൽ ഫുട്ബോൾ കളിക്കും അഞ്ചാൾക്കാരുണ്ടെ ഫുടബോൾ കളിക്കും പത്താൾക്കാരുണ്ടാകുമ്പം ഫുട്ബോൾ കളിക്കും അ അങ്ങനെ കളിക്കും എന്നിട്ട് സബ് സബ് സ്റ്റേഷൻ അങ്ങനത്തെ ഒന്നുമില്ല നമുക്ക് റെഡ് കാർഡില്ല അപ്പം ഫുട്ബോൾ കളിക്കാൻ നല്ല പാങ്ങ് ഇപ്പോൾ ഫുട്ബോൾ കളിക്കുമ്പം നമുക്കെന്താ പറയുക ഈ മേത്തൊക്കെ എല്ലാം വീണിട്ട് മുറിഞ്ഞിട്ട് ചോര എല്ലാം വരും എന്നിട്ട് അതൊക്കെ ആയിട്ട് സാധാ എന്താ അറിയാത്ത പോലെ കളിക്കും നമ്പലാന്ന് അതൊന്നും നോക്കുകയില്ല ചിലപ്പം കുറേ ആൾ നല്ലവണ്ണം ഇഞ്ചുറി ആകും കാലൊന്നു കാലെല്ലാം അടിയെല്ലാം പൊട്ടിയിട്ട് നല്ലവണ്ണം ചോര എല്ലാം വരുന്നു അതൊന്നും ഒരു മൈൻഡേ ആക്കാണ്ട് കളിക്കും അത്തരത്തോളം അത്തരം നല്ലവണ്ണം ഇതാക്കിയിട്ടാണ് നമ്മൾ ഫുട്ബോൾ കളിക്കല് ഫുട്ബോള് കളിക്കാൻ എന്തോര് ചെയ്യ് ഇപ്പം കുറേ ആൾക്കാർ നോക്കാനെല്ലാം വരും ഫുട്ബോൾ ഫുട്ബോൾ ഇപ്പോൾ

ഫുട്ബോൾ കളിക്കുന്നതു പണ്ടേ കളിക്കും ആൾക്കാർ പൊട്ടിയ ബോൾ ബോളൊന്നും നേരെ ഉണ്ടാകണമെന്നില്ല ഏതെങ്കും ബോൾ പൊട്ടിയിട്ട് അതിലേക്കു തുന്നൽ ഇട്ടിട്ട് ചിലപ്പോൾ കാറ്റൊന്നും ഉണ്ടാകില്ല കാറ്റൊന്നും ഇല്ലാത്ത ബോളായിരിക്കും കളിക്കുന്നത് ഇങ്ങനേ തട്ടി തട്ടി തട്ടി തട്ടി കളിക്കും കുറേ നേരമൊന്നുമില്ല ഈ കോർണർ ത്രോയിങ്ങ് അങ്ങനത്തെ ഒന്നുമില്ല ജസ്റ്റ് ഫ്രീ കിക്ക് ഉണ്ടാകും അതേ എവിടെന്നങ്കും ആയിരിക്കും ഫ്രീ കിക്കെന്ന് അല്ല പറയുന്നത് അടുത്തു നിന്നായിരിക്കും ഇപ്പം ഒരു മീറ്റർ ദൂരത്തു നിന്ന് അത്ര ബോൾ വെക്കും പെനാൽറ്റി അങ്ങനെയൊന്നും ഉണ്ടാകില്ല പെനാൽറ്റി പകരം ഫിയർ ഫ്രീ കിക്കായിരിക്കും ഈ ഗോളിക്ക് ഗ്ലൗസും ഒന്നും ഉണ്ടായില്ല ഗ്ലൗസ് ഒന്നുമില്ലാണ്ട് ബേർ ഹാൻസിലായിരിക്കും ചിലപ്പോൾ പവറിൽ ബോളടിച്ചാങ്ക് ചിലപ്പം കൈ എല്ലാം പൊളിയും അത്തറ അങ്ങനെ എന്തുമില്ലാണ്ട് കളിക്കും എന്തുമില്ല എത്ര ഫുട് ഷൂ ഇട്ടാൽ എല്ലാവരും ഷൂ ഇട്ടിട്ട് കളിച്ചെങ്കും ഗോളിക്ക് പെർ ഗ്ലൗസ് ഇട്ടിട്ട് കളിക്കേയില്ല ആറ് ഗ്ലൗസ് വാങ്ങില്ല അത്ര പൈസയൊന്നും നമ്മുടെ കൈയ്യിൽ ഉണ്ടായില്ല ഗ്ലൗസ് വാങ്ങാനുണ്ട ചൂടല്ലെ എല്ലാവരും ചെറുപ്പം തന്നെ ഏറ്റവും കളിക്കാത്ത കളിക്കാൻ അറിയാത്ത ആളായിരിക്കും ഗോളി നിൽക്കുന്നത് ഏറ്റവും നല്ലവണ്ണം കളിക്കുന്ന ആൾ ഫോർവേഡായിട്ടും നിൽക്കും കളിയ്ക്കാൻ ഒട്ടും അറിയാത്ത ആൾക്കാർ ഗോളി ആയിട്ടു നിൽക്കും നല്ല പാങ്ങാണ് ഗോളി ആയിട്ട് നിൽക്കുന്നത് ഗോളി ആയി നിൽക്കുമ്പോൾ നല്ല നല്ല സീ വക്കിങ്ങെല്ലാം ടീമെല്ലാം നല്ലവണ്ണം പറയും പിന്നെ ഗോളടിച്ചിട്ടാകുമ്പം സെലെബ്രേഷൻ ഉണ്ടാകും പിന്നേ എറിഞ്ഞിട്ടല്ല ഗോളാക്കുക അ എർന്ന് ജസ്റ്റ് ആരെങ്കിലും ഒന്നു ടച്ചാക്കിയാൽ മതി ഗോളാക്കണമെങ്കിൽ അങ്ങനെയെല്ലാം ഗോളാക്കാം ഗോളാക്കിയിട്ടാകുമ്പോൾ എല്ലാവരും ഭയങ്കര ചില ആൾക്ക് ഓർമ്മ ഉണ്ടാകില്ല ഇത് ഗോളടിച്ചെ ഇല്ലെ പോയിൻ്റ് ചിലപ്പം പോയിൻ്റല്ല ഇരുപതേ പതിമൂന്ന് ചിലപ്പോൾ ടൈറ്റ് മാച്ചാണെങ്കിൽ ഇരുപതെ ഇരുപത് അങ്ങനെയെല്ലാം ഉണ്ടാകും ലാസ്റ്റ് ബാങ്ക് കൊടുക്കാനാകുമ്പോൾ ആർക്കും ലാസ്റ്റ് ഒരു ബോൾ ഇടുക അപ്പോഴേക്കും കളിയിൽ നിന്ന് തീർന്ന് എല്ലാവരും ഓരോന്നേ ആൾക്കാരായിട്ട് പോകും ഒരാൾക്കാറായിട്ട് പെരെന്നു പോകും പുരയിൽ നിന്ന് പോയെങ്കിൽ ഇപ്പൊൾ പുരക്ക് പുരക്കാർ ഉമ്മ ബഹരിഞ്ഞിട്ടുള്ള സമയം ആറ് മണി അങ്ങനെയെല്ലാം കുറേ ആളെടുത്തു കുറേയാൾ ബാങ്ക് എടുക്കുവോളം കളിക്കും ലാസ്റ്റ് ആകുമ്പോൾ മൂന്നാലാൾക്കാരുണ്ടാകും ഓറും കളിച്ചിട്ടായിട്ട് മെല്ലേ ആർക്കും നിർത്തുന്നത് നല്ല പാങ്ങ് കളിക്കാൻ ഇത് പോകുന്ന അവരൊരാൾക്കാരാകുമ്പം മാറും ഗ്രൗണ്ടിലേക്ക് വന്നിട്ട് ബഹരിയാൻ തുടങ്ങും എന്തിന് ഇത്ര സമയം കളിക്കുന്നു നിങ്ങൾക്കെന്തു ബാങ്കെടുക്കുന്നതൊന്നും കേൾക്കുന്നില്ലെ അങ്ങനെയെന്നല്ല ചോദിച്ചിട്ട് നല്ല ബെഹറിൻ അപ്പോൾ എല്ലാവരും ബേജാറായിക്കൊണ്ട് പോകും ആർക്കും കളിച്ചിട്ട് മതിയായിട്ട് എല്ലാവർക്കും ആദില്ല ആദില്ല ആദില്ല കളിക്കാൻ കളിക്കണം ചില ആൾക്കാർക്ക് മഡ്രസ്സ ഉണ്ടാകും ഇപ്പം കുറേ ആൾക്കാർക്ക് കളിയ്ക്കാൻ വരാൻ വയ്യ അപ്പം ഓരെല്ലാം ആടെ നിന്നിട്ട് കളി നോക്കും ഉണ്ടാട് മദ്രസ്സെൻ്റെ മദ്രസ്സ ലീവ് കിട്ടാന്ന കുറേ ആൾക്കാരുണ്ടാകും കളിക്കാൻ നല്ല പാങ്ങുണ്ടാം മദ്രസ്സ ലീവ് കിട്ടിയാൽ സ്കൂൾ ലീവ് അല്ല കുട്ടിയാൻ എന്ത് കുറേ ആൾക്കാരുണ്ടാകും കളിയ്ക്കാൻ അപ്പം നല്ല പാങ്ങാ കളിയ്ക്കാൻ വലിയ അൻപൊന്നും ഉണ്ടാകില്ല നല്ല ആൾക്കാറും നല്ല പാങ്ങുണ്ടാകും കളിക്കാനെല്ലാം ഇത്ര തന്നെ വേറെ കുറേ എന്തുമല്ല ഈ രണ്ടാണ് നമ്മൾ മെയ്നായിട്ട് കളി